അതേ നമസ്കാരം പറഞ്ഞോളു ആ ഇത് പനി മാത്രമെ ഉള്ളോ അല്ല ആ ഓ ഇത് എന്തെങ്കിലും മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടോ അല്ല മ് ആ മഞ്ഞ് കൊണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഇതായിട്ടുണ്ടാവും അപ്പോൾ കഫത്തിൻ്റെ വന്നിട്ടുണ്ടാകും പിന്നെ വേറെ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടല്ലേ ഇപ്പം എത്ര ദിവസായി എന്നാണ് പറഞ്ഞത് ഇത് തുടങ്ങിയിട്ട് കഴിഞ്ഞോ അപ്പോൾ മരുന്ന് അപ്പോൾ നിങ്ങൾ ഒന്ന് ആ ക്ലീനിക്കിലേക്ക് ഒന്ന് വന്നോളൂ ക്ലിനിക്കിലേക്ക് ഞാൻ രണ്ട് രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ അവൈലബിളാണ് എല്ലാ ദിവസവും മ് ഞാറാഴ്ച്ച ഞാറാഴ്ച്ച അഞ്ച് മണിക്ക് ശേഷം ഉണ്ടാവും വീട്ടിൽ വീട്ടിലേക്ക് വന്നാൽ മതി മ് ആ വീട്ടിലേക്ക് വന്നാൽ മതി

ടോക്കൺ പ്രശ്നം ഇല്ല നിങ്ങൾ രജിസ്റ്റർ ആക്കിയല്ലോ പ്രശ്നം ഇല്ല നാളെ പയിന്നാമ്പോ വന്നാൽ മതി ഓക്കെ അത് കുഴപ്പമില്ല നിങ്ങൾ നാളെ വന്നതോ അതിനനുസരിച്ചിള്ള മരുന്ന് തരാം